പിന്നെ സാറെ എന്തായിരുന്നു വിളിച്ചത്

ആ ആ ഓക്കെ ഓക്കെ ആ

ആ പിന്നെ എമ്പ്ലോയിസ് കുറേയൊക്കെ അവൈലബിൾ ആണ് കുറേ ഒക്കെ നമ്മുടെ വേറെ പ്രോജെക്റ്റിൽ ഇല്ലേ അപ്പം താമരശ്ശേരിയുള്ള പ്രോജെക്റ്റിൽ കുറേ പേരുണ്ട് അപ്പോൾ അത് ഏകദേശം കമ്പ്ലീറ്റ് ആവാറായി അപ്പോൾ ചിലപ്പം ഇത് തുടങ്ങുമ്പത്തേനും നമുക്കെന്തായാലും അവൈലബിൾ ആവുമായിരിക്കും ആ ആയിട്ട് വരും അല്ലേ എട്ട് പേരൊക്കെ നമുക്കെന്തായാലും റെഡി ആയിരിക്കും കാരണം നമുക്കിപ്പോൾ ആ ആ വീടിൻ്റെ ആണോ ആ ആ വീടിൻ്റെ വർക്ക് ആണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എത്ര എത്ര അതായത് കുറേക്കാലം ഉണ്ടാവുമോ വർക്ക് ആ ആ ആ ആ ആ ആ ഓക്കെ നമുക്ക് കരാറാണോ

ആ ഓക്കെ അങ്ങനെ ആണല്ലേ

എവിടെ ആയിട്ടായിരുന്നു ബീച്ചിൻ്റെ അവിടെയല്ലേ അ സാർ അപ്പം അവിടെ ഉണ്ടാവുമോ ആ ഓക്കെ ഞാനപ്പോൾ എപ്പോഴാണ് വരേണ്ടത് അല്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അതിന് മുന്നെ നമുക്ക് പണിക്കാരെയൊക്കെയൊന്ന് ജസ്റ്റ് റെഡി ആക്കി വയ്ക്കാൻ നമ്മുടെ രണ്ട് പ്രൊജക്റ്റിൻ്റെ അവിടെ ഏകദേശം അത് കഴിയാറായതല്ലെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും എല്ലാവരും ഉണ്ടാവുമായിരിക്കും എന്നാൽ അത് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുവായിരിക്കും ആ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പോയി നോക്കാം ഇന്ന് ഈവ് എന്നാൽ ഇന്ന് ഈവനിംഗ് ഞാൻ അതായത് ഒരു ഒരാളെയും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി വരാം ആ എന്നാൽ ആ എന്നാൽ ഓക്കെ കേട്ടോ ഓക്കെ സർ വരുമ്പോൾ വിളിക്കാം